ഞാൻ പൂന്തോട്ട പരിപാലനത്തിന് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് മണ്ണ് മാന്തി അത് ഉപയോഗിക്കുന്നത് മെയിനായിട്ട് വളമൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കുവാനും വളം ഇടാനുമൊക്കെ വേണ്ടിയിട്ട് മണ്ണ് മാന്തിയാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത് പിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് വേണ്ട വേറൊരു സാധനമാണ് പടന്ന എന്ന് പറയുന്നത് കാരണമെന്തെന്ന് വച്ചാൽ നമ്മൾക്ക് ചെടി ചട്ടിയിലൊക്കെ മണ്ണ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ പറമ്പിലോ പറമ്പിൽ നിന്നൊക്കെ മണ്ണ് കോരിയിട്ട് കൊണ്ടു വരാനും മിക്സാക്കാനുമൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് പടന്ന പിന്നെ ഉള്ളത് കത്രിക കത്രിക എന്ന് വച്ചാൽ രണ്ട് ടൈപ്പ് കത്രിക ഉണ്ട് ഒന്ന് ഗാർഡനിങ്ങിന് തന്നെ ഉപയോഗിക്കുന്ന കത്രികയാണ് വലുതുണ്ട് ചെറുതുണ്ട് വലിയ കത്രിക ഉപയോഗിക്കുന്നത് മരച്ചെടി പോലത്തെ വലിയ ചെടികൾ ഉണ്ടെങ്കിൽ നമുക്കത് അതിൻ്റെ ഷേപ്പിലൊക്കെ വെട്ടിയെടുക്കാനും അതുപോലെ തന്നെ കൂടുതലായിട്ട് ചില്ലകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു വെട്ടി ഒന്ന് ഒതുക്കാൻ വേണ്ടിയിട്ടൊക്കെ വലിയ കത്രികയാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഈ റോസ് പോലത്തെ ചെറിയ ചെറിയ ചെടികൾ നമ്മൾ പൂ കായ്ച്ചാൽ അത് അതിൻ്റെ തണ്ട് വെട്ടി മാറ്റാനും പിന്നെ അതുപോലെ കടലാസ് പൂവിൻ്റെ ഒക്കെ ഒരുപാട് വലിയ ചില്ലകളായാൽ അത് ചെറിയ ചെറിയ ചില്ലകളാക്കി മാറ്റാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കത്രികകൾ പിന്നെയുള്ളത് പൈപ്പ് വെള്ളം മെയിനായിട്ട് ഓസ് പൈപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് കാരണം വെള്ളം കോരാൻ വേണ്ടിയിട്ട് കൂടാതെ ഒരു സ്പ്രേയറും കൂടിയുണ്ട് കാരണം എന്ന് വച്ചാൽ ചില ചെടികൾ നമുക്ക് കീടാണുക്കളൊക്കെ വരികയാണെങ്കിൽ നമുക്ക് അതിൽ മിക്സ് വളമൊക്കെ മിക്സ് ചെയ്തിട്ട് അതൊന്ന് സ്പ്രേ ചെയ്തു കൊടുക്കാൻ സ്പ്രേയറും കൂടി ഉപയോഗിക്കുന്നുണ്ട്